ഹലോ അ ഹലോ മേം ഞാന് ടൂ ടൂറിസ്റ്റായിട്ടിവിടേ പിന്നേ പുറത്തുനിന്ന് വന്നിരിക്കയാണേ ഞാന് പിന്നെ ശ്രീലങ്കയിൽ നിന്നാണ് വന്നിരിക്കുന്നത് ആ ഒക്കെ അത് മേം അയി ആ മേം മേം ഞാൻ ഓൾറെഡി കേരളായിൽ എത്തികഴിഞ്ഞു മേമിന് മേമിനെയാണെനിക്ക് കൊണ്ടാക്റ്റെയാൻ കിട്ടിയത് അപ്പോ എനിക്ക് പിന്നെ കാണേണ്ടതും അറിയേണ്ടതും പ്രധാനമായിട്ടു ഇവ്ട്ത്തെ റബ്ബറുൽപ്പാദനത്തെ പറ്റിയും ആ റബ്ബർ പ്ലേൻ്റെഷനെ ആ അതിനെ പറ്റിയൊക്കെ ആയിരുന്നു അറിയേണ്ടത് മേം എനിക്ക് കൂട്തൽ കാര്യങ്ങൾ പറഞ്ഞേരാൻ കഴിയോ ആ ഞാന് ഇപ്പോള് കൊല്ലത്തെത്തിയിട്ടുണ്ട് മ്മ് മേം ഇവിടെ വന്ന് ഇവിടേ വന്നെന്നെ പിക്കെയ്യാൻ കഴിയോ ആ ആ മേം അതിനെ കുറിച്ച് ഞാനറിഞ്ഞിട്ടുണ്ട് മേം അതറിഞ്ഞ് അ തെക്കൻ മേഖലയല്ലേ ആ അത് ആ മ്മ് അ ആ കോട്ടയം അല്ലേ അ ഓക്കെ ഓക്കെ മേം അത് അതാണ് അവിടത്തെ ജനങ്ങളുടെ പ്രധാന ഒരു ഇങ്കം അല്ലേ അ അ ആ അ ഫേമിലീ ഫേമിലി എല്ലാവരും അതിൽ പങ്ക് ചെയ്യാറുണ്ടല്ലെ അ അ അ മേം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ മേം മേം മേം ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ എന്ത് ടൈപ്പ് റബ്ബറൊക്കെയാണുള്ളത് എങ്ങനെയാണ് ആ കൂടുതൽ ഉത്പാദനം കിട്ടുന്നതതാണോ ആ റബ്ബർ നേഴ്സറികൾ ആ കൂടേല് വെച്ച് ചെറുതല്ലേ അ അ അപ്പോഴാണ് ഉൽപ്പാദനം കൂട്ടാ കഴിയുന്നതല്ലേ ആ മേം ഇത് ഇതെങ്ങനെയാണ് എത്ര വർഷ ആ ഏഴ് വർഷാ അ ആ ഇടവിളകളായിട്ട് ആ ആദ്യത്തെ മൂന്ന് വർഷമല്ലേ ഓക്കേ മ്മ് അ അ ആ അപ്പോള് ആ മറ്റ് വിളകളൊന്നും തന്നെ അതിൻ്റെടെയ്ക്ക് പറ്റില്ല അ പിന്നെ മേം ഇതിൻ്റെ പ്രോസസ്സ് ഇത് ഇതായിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രോസ്സെസ്സിങ്ങും മറ്റു എങ്ങനെയാ മാർക്കിടാറുണ്ട് ആ മേം ഇതിൻ്റെ അപ്പോൾ ഈ ഇതിൻ്റെ പിന്നെ ഷീറ്റൊക്കെ ആയിക്കഴിഞ്ഞിതിൻ്റെ ഇപ്പോള് എങ്ങനെയാ അതിൻ്റെ വിലാ ഒക്കെ നല്ല വില കിട്ടുന്നുണ്ടോ ഓ ആ ഗവൺമെൻറ്റ് അ ആ പോവുന്നുണ്ട് ആ മേം അപ്പോള് ഈ റബ്ബർ ഈ റബ്ബർ ഷീറ്റ് കൊണ്ട് ഇത് എന്താ പ്രധാനമായും ടയറൊക്കെ ഉൽപ്പാദിപ്പിക്കാന് വേണ്ടിയാണോ ഇത് ഉപയോഗിക്കുന്നത് ഓ അപ്പോള് ഇങ്ങനെ ഷീറ്റായിട്ട് അടിച്ചെടുക്കുന്നത് ഇപ്പോള് കുറവാണൊ ഇപ്പോള് ബാരല് കൊണ്ടുവച്ച് അത് ആ പാല് കളക്റ്റെയ്ത് പോവാണല്ലേ അ അ ആ മേം ശരി ഇത്രയും വിലപ്പെട്ടാ കാര്യങ്ങളൊക്കെ മേം പറഞ്ഞ് തന്ന് ഇന്ന് വൈകുന്നേരം മേമിന്റട്ത്തേക്ക് ഞാനെത്തും അപ്പോള് മേം എനിക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുതരുമല്ലോ അല്ലേ ഓക്കെ ഓക്കെ അയക്കാ ഓക്കെ താങ്ക്യൂ ഓക്കെ